പല റേഡിയകളും ടേപ്പ് റെക്കോട്കളും ശേഖരിക്കാൻ ഇഷ്ടമാണ് അവ കാണുമ്പം നമ്മുടെ എടേലാ റേഡിയോ കാണുമ്പം ഓടിയെത്ത്ന്ന നമ്മൾ വെള്ളിയാഴ്ചകളിൽ കണ്ടുകൊണ്ടിരുന്ന രഞ്ചിനിയും നമ്മുടെ റേഡിയോയിലുള്ള റേഡിയോ നാടകങ്ങളും ആൻ്റണി മുനിയറ പോലെ ഉള്ളവരവതരിപ്പിച്ച് കൊണ്ടിരുന്ന ആർട്ടിക്ക്കളും നാടകങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് കുട്ടിക്കാല ഓർമ്മകൾ റേഡിയോ കാണുമ്പഴും കേൾക്കുമ്പഴും ഓടിയെത്തുക ടേപ്പ് റെക്കോഡറുകളാണെങ്കിൽ തന്നെയും നമ്മൾ കാസറ്റിട്ട് അതിന് ഡാൻസ് ഒപ്പന തിരുവാതിര പ്രാക്ടീസ് ചെയ്യുമ്പോള് ടേപ്പ് റെക്കോഡറിലെ വള്ളിചുറ്റി അത് കീന്ന് സബ്ദത്തിൽ പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നല്ല നല്ല ഓർമ്മകൾ ടേപ്പ് റെക്കോഡറും റേഡിയയും കാണുമ്പം എൻ്റെ വീട്ടിൽ ഇപ്പോഴും പഴയ റേഡിയയും ടേപ്പ് റെക്കോഡറുകളും നേറെ ഇഷ്ടത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒത്തിരി ഇഷ്ടവാണ് ഫോണും ഇതെക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിന് സന്തോഷം നൽകിയതാണ് റേഡിയയും ടേപ്പ് റെക്കോഡറുകളും